എൻ്റെ ജീവിതത്തിൽ ക്യാഷൊള്ളവന് അതായത് ഇപ്പം കുറെ പൈസയും നല്ലൊരു വീടൊക്കെയുണ്ടാക്കാണെൽ എല്ലാവരും സമൂഹത്തിൽ ഭയങ്കര വിലയായിരിക്കും കുടുംബക്കാരുടെ ഇടയ്ക്കും അവർക്ക് വലിയൊരു ഇതായിരിക്കും ഒന്നുമില്ലാത്തവന് ആരുണ്ടാവൂല അവസാനം വരെ നമ്മളീ പട്ടീനെപോലെക്കിടന്ന് അവരുടെ വീട്ടിലോടി നടന്ന് എല്ലാപണിയെടുത്താലും നമുക്കൊരു വിലയുണ്ടാവൂല ഇപ്പം നമ്മളൊരു നല്ലൊരു പൊതു ഒരു കുടുംബത്തിലെ തന്നെയൊരു ചടങ്ങെന്ന് വിചാരിച്ചോളു പൈസയില്ലാത്തവൻ അവിടെ പണിക്കാരനെ പോലെയായിരിക്കും പൈസയുള്ളവനെ അവർക്ക് വലിയ രാജകീയമായ ട്രീറ്റായിരിക്കും ഇപ്പം നമുക്കാദ്യം വേണ്ടത് കുറച്ചു വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ഞാൻ പറയട്ടെ നേരായ മാർഗ്ഗം നല്ലൊരു വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമുക്കൊരു ജോലിയിലെത്തിപ്പെടാൻ പറ്റും ഇപ്പം നമുക്കൊരു ജോലി കിട്ടിയാൽ നല്ല നിലയിലെത്താൻ പറ്റും നമുക്ക് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റും അല്ലാതെ നാലാൾക്കാരുടെ മുൻപിൽ പോയി കയ്യെടുത്തു ഓക്കാനിച്ചു നിൽക്കേണ്ട ആവശ്യം നമുക്കില്ലല്ലോ അങ്ങിനെ ചെയ്യുമ്പം നമുക്ക് സത്യം പറയാം സമൂഹത്തിൽ പൈസയില്ലാത്തവന് ഒരു എന്താ പറയാ ഒരു പട്ടീടെ വിലപോലും മനുഷ്യൻ കൽപ്പിക്കില്ല ഉള്ളവനെല്ലാമുണ്ട് ഇല്ലാത്തവന് ഒന്നുമില്ല അപ്പം നമ്മൾ അതായത് ഞാൻ ജീവിതത്തിൽ പഠിച്ചു കേട്ടോ ഞാൻ എനിക്കനുഭവമുള്ള കാര്യമാണ് ഞങ്ങടെ കുടുംബത്തിൽ എല്ലാവരും ഒരുമാതിരി അത്യാവശ്യം നല്ലരീതിയിൽപ്പെട്ടവർ നമുക്കൊന്നൂല്ല പക്ഷേ നമ്മളെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നൊരവസ്ഥ അത് അനുഭവിക്കുന്നവർക്കേ മനസ്സിലാവുള്ളു പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല അതനുഭവിച്ചു തന്നെ മനസ്സിലാക്കണം അവർ വരുന്നൂ പോവുന്നു പക്ഷേ നമ്മുടെ ഈ ചെറിയ കുടിലിലേക്കാരും വരുന്നില്ല അങ്ങിനെയൊരു അവസ്ഥ അത് അനുഭവിച്ച് മനസ്സിലാക്കേണ്ട ഒന്നാണ്